വാട്ട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഒക്കെയാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം അതു വഴി നമുക്കിപ്പം പല പല അറിവുകൾ നമുക്ക് അറിയാൻ കഴിയും ഇപ്പം ന്യൂസ് കാണാതെ തന്നെ പല തരത്തിലുള്ള ന്യൂസുകളും മറ്റും നമുക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ വാട്സപ്പിലൂടെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പം ഇപ്പം എന്നും ന്യൂസ് കാണണമെന്നൊന്നുമില്ല നമ്മളാണെങ്കിൽ ഒരു എന്താ കുറേ റീലൊക്കെ കാണുമ്പം പല പല കാര്യങ്ങളാണ് നമുക്കും ലോകത്തെടുക്കുന്ന പല പല കാര്യങ്ങളും നമുക്ക് ആ ഒരു റീലിലൂടെ നമുക്ക് മനസ്സിലാക്കാനും കാണുവാനായിട്ട് സാധിക്കും ഒരു ന്യൂസ് ചാനലിൽ ഒരു ന്യൂസ് നമ്മൾ കണ്ടില്ലെങ്കിൽ പോലും കാര്യങ്ങൾ നമ്മൾ റീൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റീലിലൂടെ റീൽ കാണുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അറിയാനും കഴിയും അതു പോലെ തന്നെ പല ലോകത്ത് നടക്കുന്ന പല പ്രദേശത്തിൽ കാര്യങ്ങളും പല രാജ്യങ്ങളിലെ കാര്യങ്ങളൊക്കെ നമുക്ക് റീലിലൂടെ കാണാനായിട്ട് കഴിയും പല പ്രദേശത്തെ എന്തൊക്കെയുണ്ടെന്നും അവിടുത്തെ പ്രകൃത സൗന്ദര്യങ്ങളൊക്കെ ഒക്കെ അതൊക്കെയൊരു റീൽ റീലിലൂടെ കാണുവാനും മറ്റും സാധിക്കുന്നതാണ് ഇപ്പം ലോകത്തിലെ ഏതു കോണിലിരിക്കുന്ന ആളായിട്ട് നമുക്ക് വാട്സപ്പിൽക്കൂടി വീഡിയോകളൊക്കെ ചെയ്ത് സംസാരിക്കാനും മറ്റും കഴിയുന്നതാണ് അപ്പം അവിടുത്തെ വിവരങ്ങളും നമുക്ക് അറിയാനായിട്ട് കഴിയും അതു പോലെ തന്നെ പല പല കൾച്ചറിനെക്കുറിച്ചും മറ്റും നമുക്ക് നമുക്ക് മനസ്സിലേക്ക് കാണാനായിട്ട് സാധിക്കും ആളുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പല പല ആളുകളെ വസ്ത്ര ധാരണമൊക്കെ നമുക്ക് ഒരു ഇതിലൂടെ മനസ്സിലാകുന്നത് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മളുടെ സ്ഥലത്ത് ഇപ്പം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പം നമുക്ക് ന്യൂസ് കാണണമെന്നു തന്നെയില്ല നമ്മൾ കുറച്ച് റീൽ കണ്ടാൽ മതി നമുക്ക് ആ ന്യൂസ് നമ്മളിലേക്ക് നമുക്കാറീലിലൂടെ നമുക്കാ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പോകാണെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ മാപ്പിനോട് ചോദിച്ചാൽ നമുക്ക് വഴിയൊക്കെ വഴിയൊക്കെ നമുക്ക് കാണിച്ച് എന്താണ് പണ്ടൊക്കെ നമ്മൾ ഓരോരോ സ്ഥലത്ത് നിർത്തി വഴി ചോദിച്ച് ചോദിച്ച് പോയ്ക്കൊണ്ടിരുന്ന എന്നതായിരുന്നു പക്ഷേ ഇന്നാണെങ്കിൽ ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു സ്ഥലത്ത് അതിൻ്റെയൊന്നും ആവശ്യമില്ല ഒരു സ്ഥലത്ത് ഇപ്പം ഒരു സ്ഥലത്ത് നിന്നെങ്കിൽ ഗൂഗിൾ മാപ്പിട്ട് പോയി നമ്മൾ ആ ഗൂഗിൾ മാപ്പ് നമുക്ക് ആ വഴിയൊക്കെ പറഞ്ഞു തരും ഇപ്പോൾ വാട്സപ്പ് ആണെങ്കിൽ വാട്ട്സപ്പ് ആണെങ്കിൽ തന്നെ നമുക്ക് പല പല ഗ്രൂപ്പുകളിലൂടെ ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ഇപ്പം ലോകത്തെ എന്തൊക്കെ എന്തൊക്കെ ചെറിയ കാര്യം ഉണ്ടായാലും അതൊക്കെ നമ്മുടെ ഫോണിലൂടെ പെട്ടെന്നു നമുക്ക് ലഭിക്കുന്നതാണ് അതിന് സോഷ്യൽ മീഡിയ ഫ്ലാറ്റ്ഫോം പല തരത്തിലുള്ള ഫ്ലാറ്റ്ഫോമുകൾ ഇന്ന് നമുക്ക് വലിയ സഹായകമായി ലഭിച്ചിട്ടുണ്ട് ഇപ്പം ഗൂഗിളിൽ നോക്കിയാൽ തന്നെ നമുക്ക് പലകാർ പല തരത്തിലുള്ള കാര്യങ്ങൾ ഈ ലോകത്തെടക്കുന്ന പല കാര്യങ്ങളും പലതിനെക്കുറിച്ചുള്ള അള അറിവും ഒരാളെ ഒരു പ്രശസ്തമായ ഒരാളെക്കുറിച്ചു തന്നെ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ അയാളുടെ വിവരങ്ങൾ പോലും നമുക്ക് ഗൂഗിൾ നൽകുന്നതാണ് അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് പല ആളുകളെ പരിചയപ്പെടാനും പല സൗഹൃദങ്ങളും ലഭിക്കാനൊക്കെ വഴിയൊരുക്കും പലേ യൂട്യൂബിൽ നോക്കി നമുക്ക് പല പല പല പല കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും പല പല പല കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് യൂട്യൂബ് വല്ല യൂട്യൂബ് പോലെയുള്ള പല പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് സഹായിക്കും ഇപ്പോൾ ഒരു തയ്യൽ പഠിക്കുകയാണെങ്കിൽ പോലും നമുക്കിപ്പം അത് ഓൺലൈനായിട്ട് പഠിക്കാം അതു പോലെ തന്നെ പല പലതും കമ്പ്യൂട്ടർ എന്താണെങ്കിലും നമുക്കിപ്പം അത് ഓൺലൈനായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ പണ്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നു എന്നാൽ ഇപ്പം നമുക്ക് അതൊക്കെ ഓൺലൈനായിട്ട് പഠിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു പല തരത്തിലുള്ള അറിവുകളും മറ്റും നമുക്ക് ഓൺലൈന് പക്ഷേ നല്ല നോക്കിയും കണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയ കൊണ്ട് പണി കിട്ടുകയും ചെയ്യും ഇപ്പം നമ്മളാണെങ്കിൽ പൈസ ഉണ്ടാക്കാനായിട്ട് സോഷ്യൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാനൊക്കെ പറഞ്ഞാൽ കുറേ ആ ആടും പരസ്യങ്ങളൊക്കെ കാണുന്നത് എന്ന അതിലൊക്കെ ചിലതൊക്കെ ചിലപ്പോൾ സത്യമാകും എന്നാൽ അതിലും പണികൾ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പം അതൊക്കെ നമ്മൾ നോക്കിയും കണ്ട് ഉപയോഗിക്കണം ഇപ്പോൾ കുറേയേറെ തട്ടിപ്പുകൾ ഇത് ഇതു വഴി നടക്കുന്നുണ്ട് അതെല്ലാം നോക്കിയും കണ്ട് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഉപയോഗിക്കാം നമ്മളൊരു ഒരു ബിസിനസ്സ് തുടങ്ങണമെങ്കിൽ അതും വേണമെങ്കിൽ നമുക്ക് ഈ ഫ്ലാറ്റ്ഫോം വഴി ഉപയോ ഇങ്ങനെ ചെയ്യാവുന്നതാണ്